നേയ്ത്ത് ചട്ടി ഉണ്ടാക്കുക കുശവന്മാരുടെ ചട്ടി ഉണ്ടാക്കുക കൊല്ലന്മാരുടെ അരിവാള് അങ്ങനത്തേ ഇരുമ്പ് പണികൾ നാടോടി നൃത്തം ഇങ്ങനത്തെ കലാരൂപങ്ങളും നൃത്തരൂപങ്ങളും കലാശീലങ്ങളും ഇപ്പം കണ്ട് വരാറില്ല പൊതുവേ കുട്ടികളത് പഠിക്കാൻ താല്പര്യപ്പെടാറുവില്ല എല്ലാവരും അത് മറന്ന് മറന്ന് പോകുവാണ് പഴയ കാലത്തേ ആചാരങ്ങള് നേയ്ത്ത് ഈ കൊല്ലമ്മാര് കുശവന്മാര് അവരുടെ ഇതൊന്നും ആരും ചെയ്യുന്നതായിട്ട് കാണുന്നില്ല എല്ലാം മഷീൻ വർക്കാണ് ഓട്ടോമാറ്റിക്കായിട്ട് ഫാക്റ്ററി വർക്കായിട്ട് വര്ന്ന സാധനം കിട്ട്ന്നത് കൊണ്ട് ആൾക്കാരൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ടും ആരും ഇവരുടെ അടുത്ത് പോകാറുമില്ല ഈ പണികളും കാര്യങ്ങളും കലാശൈലികളും ഒന്നും പഠിക്കുന്നതായിട്ട് കാണാറ് മോൾഡിംഗ് മോൾഡിംഗ് പ്രത്യേകിച്ചാരും പഠിക്കാൻ നേയ്ത്ത് നേയ്ത്തൊന്നും പഠിക്കുന്നതായിട്ട് കാണാറേയില്ല ഇങ്ങനത്തേ കാര്യങ്ങളെല്ലാരും പഠിക്കണമെന്നും ഇത് നശിപ്പിച്ച് കളയാതെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ആണ് എൻ്റെ ഒരിത് പഠിക്കേണ്ട ആവശ്യമുണ്ട് ആളുകൾ ഇതിൽ പരമ്പരാഗതയെ മറക്കരുത് എന്ന് നാടോടി നൃത്തവും വെറും ചുമ്മാ ഒര് കലാരൂപമായിട്ട് പോകുവാണ് ആരും അതിനേക്കുറിച്ച് കൂടുതലായിട്ട് ശാസ്ത്രീയമായി പഠിക്കുകയോ സ്റ്റേജ് പെർഫോർമൻസായിട്ട് മാത്രം കലാശിക്കുകയാണ് അതിനെക്കുറിച്ച് കൂടുതലായിട്ടാരും അറിയുന്നില്ല ചുമ്മാ ഗ്രേസ് മാർക്കിന് വേണ്ടി മാത്രം പഠിക്കുക അല്ലാണ്ട് വേറൊന്നും പഠിക്കുന്നതായിട്ട് കാണുന്നില്ല അതാണ് കുഴപ്പം ഉം അങ്ങനെ ഒക്കെ കണ്ടു വരുന്നുണ്ട് ആരും അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാറില്ല